ആ കേൾക്കാം പറഞ്ഞോളൂ ആണോ എ എവിടെ എവിടെ വെച്ചായിരുന്നു ഓഫിസിൽ ഏത് ഭാഗത്തായിരുന്നു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു ആ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തതായിട്ട് വല്ലതും ഓർമ്മയുണ്ടോ കൊടുത്തിട്ടില്ല അപ്പോൾ വേറാരോടും ബാഗിനെ പറ്റി ചോദിച്ച ചോദിച്ചിട്ടില്ലേ

ഓ ബാഗിൻ്റെ കളറൊന്നു പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു ബാഗിൽ ഉള്ള ഡിസൈനും കാര്യങ്ങളും ഓക്കേ അതിലെന്തൊക്കെ ഡീറ്റൈൽസായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നോ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ വല്ല ആധാർകാർഡും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ ആ ബാഗിനകത്ത് ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ബാഗ് നമുക്ക് നോക്കാം നോക്കി കഴിഞ്ഞിട്ട് ഞാനിവിടെ അന്വേഷിക്കാം വേറെ എവിടേലും ഉണ്ടെങ്കിലും നമ്മുടെ ബാഗ് കാണുന്നില്ലെങ്കിൽ നമുക്കൊന്ന് സി സി ഇതിനകത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് അതിനകത്ത് അതിൽ കൂടെ കാണാൻ പറ്റുമോന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇല്ലെങ്കിലൊന്ന് പോലിസിലൊന്ന് കംപ്ലയിൻ്റെ ചെയ്യാം എന്താണ് മേഡത്തിൻ്റെ അഭിപ്രായം ഓക്കെ പൈസ എത്ര ഉണ്ടായിരുന്നു എന്നൊന്ന് പറയുമോ പതിനായിരം രൂപ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നല്ലേ സി സി ടി വി ക്യാമറയിലൂടെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആരെങ്കിലും ബാഗ് എടുത്തിട്ട് പോയോന്ന് നമുക്ക് അറിയാം ഞാനെന്തായാലും ഈ ഒരു അതിൻ്റകത്തു ഇരുന്നപ്പോൾ എന്തായാലും പുറത്തെന്തായാലും ഇരുന്നപ്പോൾ ബാഗ് എടുത്ത് പോയതായിട്ടാരും ഞാൻ കണ്ടില്ല ഉച്ചയ്ക്കായാലും ജോലി നിർത്തി പോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത് എന്തായാലും പോയാലും അറിയും ആ ബാഗ് പോയാൽ ഉറപ്പായിട്ടും നമുക്കത് കണ്ടു പിടിക്കാം എന്തായിരുന്നു കേട്ടില്ലായിരുന്നു ഒന്നും കൂടി പറയുമോ ആം ഓക്കെ ഓക്കേ ആ ഞാനിന്ന് നോക്കിയേക്കാം എവിടെ ആയിരുന്നു താങ്കളുടെ വീട് എവിടെ ആയിരുന്നു മുരിക്കാശ്ശേരി മ്മ് മുരിക്കാശ്ശേരിയിൽ എവിടെയായിട്ട് വരും

ആണോ ഓക്കെ അപ്പോൾ നേരെ ഇപ്പോൾ വീട്ടിൽ പോയിക്കോളു നമ്മൾ ഇപ്പം ബാഗ് കിട്ടുകയാണെങ്കിൽ ഞാനത് കൊടുത്തയയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾ നാളെ വന്നിട്ടാണെങ്കിലും വീട്ടിൽ ഓഫീസിൽ വന്നിട്ട് നമുക്കത് കിട്ടുകയാണെങ്കിൽ നമുക്കതൊന്ന് എടുത്തു വയ്ക്കാം ആ ഓക്കെ ഓക്കെ